ഞങ്ങളിവിടെ അടുത്തുള്ള പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാല് ഞങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടില് എന്തെങ്കിലും പച്ചക്കറിയോ ഇല്ലെങ്കില് ഡ്രസ്സ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഞങ്ങൾ പട്ടണങ്ങളിൽ പോകാറുണ്ട് പിന്നെ ഫോൺ റീചാർജ് ചെയ്യാന് പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് പിന്നെ പച്ചക്കറി ഫുഡിങ് ഫുഡ് ഉണ്ടാക്കാനുള്ള അരി മേടിക്കാന് അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ പട്ടണങ്ങളിൽ പോവാറുണ്ട് പിന്നെ എന്തെങ്കിലും കഴിക്കാനോ എന്തെങ്കിലും ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കൊക്കെ പോകണമെങ്കില് പട്ടണത്തെ തന്നെ ആശ്രയിക്കണം ആ ഇവിടന്ന് ഇപ്പം ഇതൊരു ചെറിയ ഒരു ടൗൺ ആണ് ഇവിടെ ഉള്ളത് ചെറിയൊരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങള് ഇതിലേറെ കൂടുതൽ സാധനങ്ങളും പച്ചക്കറി ഐറ്റംസാണെങ്കിലും ഫുഡിൻ്റെ ഐറ്റംസാണെങ്കിലും കിട്ടാനേ വലിയ പട്ടണങ്ങളിലേക്ക് വേണം പോകാന് എന്നാലേ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കിട്ടു അതിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങള് അങ്ങനെ പട്ടണങ്ങളിലേക്ക് പോവാറുണ്ട്